ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഗാർഡനിങ് അഥവാ പൂന്തോട്ട പരിപാലനം അല്ലെങ്കിൽ ചെടി പരിപാലനം ഇത് എത്രത്തോളം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതിന് അതിൻ്റെ പരിപാലനം എൻ്റെ ഒരു ദിനചര്യയായി ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെ പരിപാലനം അല്ലെങ്കിൽ ഇവയ്ക്ക് ഉള്ള മെയിൻറ്റയിൻസ് ഞാൻ ചെയ്യുന്നത് തനിച്ച് തന്നെയാണ് ആവശ്യമെങ്കിൽ പണിക്കാരെയും ഞാൻ ചേർക്കാറുണ്ട് കൂടുതൽ ദിവസം പുറത്ത് പോകണമെങ്കിൽ ചെടികളെ ഞാൻ മാക്സിമം ആരെയെങ്കിലും ഏല്പിച്ചിട്ടാണ് പോകാറ് അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള പരിചരണം എന്തെങ്കിലും ആരെയെങ്കിലും ഏൽപ്പിക്കാതെ ഞാൻ ഒരിക്കലും പോകാറില്ല കാര്യം ചെടികൾ മനുഷ്യനെന്നോണം ഒരു ജീവനാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ലോകത്തിലേതൊരു വസ്തുവായാലും അതിനൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ജീവനുണ്ട് അതിനെ അതിൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് നിന്നും നമ്മൾ പറിച്ചു കൊണ്ട് വന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നട്ടതായിരിക്കാം അതിൻ്റെ ഇൻസിറ്റീവായിട്ടുള്ള കണ്ടിഷനിൽ നിന്നും നമ്മൾ മാറ്റി നടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം നമ്മളൊരു എമ്പതറ്റിക്കായിട്ട് ചിന്തിക്കണം അതു കൊണ്ട് തന്നെ അതൊരു ജീവനാണെന്ന് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഭക്ഷണവും വളവും ആവശ്യമാണ് ജലവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ കൂടുതൽ ദിവസം പുറത്ത് പോകേണ്ടി വന്നാൽ സാഹചര്യം ഉണ്ടെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ ശരിയായ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതെ ഒരിക്കലും ഞാൻ പോകത്തില്ല എൻ്റെ എൻ്റെ വളർത്തുമൃഗങ്ങളും എൻ്റെ ഈ ചെടികളുമാണ് എൻ്റെ ജീവിതത്തിലേറ്റവും വലിയ അസറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നതും ഇതുവരെയുള്ള ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു പോറലുണ്ടാകുന്നത് എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാതെയോ ഞാൻ ഒരിക്കലും പുറത്ത് പോകാറില്ല ഇതാണ് ഇതിൻ്റെ മറുപടി